നമ്മുടെ കുട്ടികൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോയി പഠിക്കേണ്ട ആവിശ്യമില്ല കാരണം നമ്മുടെ പിന്നെ നാട്ടിൽത്തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാ കോളേജുകളും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മുക്ക് നടന്നു പോകേണ്ട ദൂരമെ ഉള്ളു വണ്ടിക്ക് പോലും പോകേണ്ട മറ്റു കുട്ടികൾ ആ ദൂരെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കേണ്ടൊരു അവസ്ഥയാണ് കാരണം നമ്മുടെ നാട്ടിലാണ് കോളേജ് ചുറ്റോടു ചുറ്റും കോളേജുകൾ സ്കുളുകൾ ആശുത്രികൾ നമുക്ക് വയനാട് ജില്ലെനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു ജില്ലയാണ് കാരണം എല്ലാത്തിനും സൗകര്യമുണ്ട് പിന്നെ നഴ്സിംഗ് പഠിക്കാൻ മാത്രമാണ് കുട്ടികൾ ഒന്നില്ലെങ്കിൽ കോഴിക്കോട് ഒന്നിലെങ്കിൽ മൈസൂർ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകേണ്ടി ഒരു അവസ്ഥ വരുന്നത് ഇപ്പം പനമരത്തുമുണ്ട് അല്ലാതെ നമ്മളെ കുട്ടികളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠന രീതിയ്ക്ക് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽത്തന്നെ എല്ലാ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജ് ബി എഡ് കോളേജ് ഇതൊക്കെ നമുക്ക് ഇവിടെ എല്ലാ കുട്ടികൾക്ക് പഠിക്കാൻ ഉള്ളൊരു അവസരങ്ങളും അതുപോലെ നല്ല കഴിവുള്ള കുട്ടികൾക്ക് എല്ലാ കലകളും ആയി രംഗത്ത് എത്തിപ്പെടുന്ന ഒരു ജില്ലയാണ് വയനാട്